വളർത്ത് മൃഗങ്ങളെന്ന് പറഞ്ഞാൽ നായ പൂച്ച അങ്ങ അതൊക്കെ നമ്മള് വളർത്ത് മൃഗത്തില് പെടും അതിൽ എനക്ക് പൂച്ചേനെക്കെ ഇഷ്ടാണ് പൂച്ചേനെ ഇഷ്ടമാന്ന് പറഞ്ഞാല് നമുക്ക് പൂച്ചേനെ യ എല്ലാർക്കും ഒരുപാട് ഇഷ്ടായിരിക്കും കാരണം നല്ല പപ്പും തൂവലും ഒക്കെ ഉള്ള പൂച്ചേനെക്കെയാണെൽ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും പിന്നേന്ന് പറഞ്ഞാൽ ഹിന്ദൂസൊക്കെ ആണെങ്കില് ഇപ്പോൾ തന്നെ മുസ്ലിംസും ഒക്കെ ആണെങ്കിൽ തന്നെ നായ്ക്കുട്ടീനൊക്കെ വളർത്താറുണ്ട് പട്ടികളെ ഒക്കെ വളർത്താറിണ്ട് പട്ടികളെ ഒക്കെ വളർത്തുന്ന നല്ലയാന്നൊക്കെയാ അവര് പറയുന്നത് പക്ഷെ ഞാൻ പറയുന്നത് പട്ടികളെ വളർത്തുന്നതൊക്കെ ദോഷാണ് ആ പട്ടി നമ്മളെ തന്നെ ചിലപ്പം തിരിച്ച് കടിക്കാൻ സാധ്യതയുണ്ട് പേ എളകീട്ടാണെങ്കിലും അത് ചിലപ്പോൾ നമ്മള് ഓ കൂട്ടിലൊക്കെ കെട്ടി ഇട്ട് വളർത്തുന്ന ആയിരിക്കാലും എന്നാൽ പിന്നെ അത് പുറത്തേക്ക് പോയാൽ തന്നെ എല്ലാവരും ഉപദ്രവിക്കും എല്ലാവരും കടിക്കൊക്കെ ചെയ്യും അത്പോലെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് ഇപ്പോൾ തന്നെ ദേ പട്ടി കടിച്ചാല് ഇൻജെക്ഷൻസ് ഒരുപാടുണ്ട് എടുക്കാന് അങ്ങനെ ഇൻജെക്ഷൻ ഒക്കെ എടുത്ത് ഒരുപാട് ഓരോ പ്രശ്നങ്ങളൊക്കെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിന് പകരം നമ്മള് ഇപ്പോൾ പൂച്ചേനെ ആണെങ്കിൽ പൂച്ചയും ഇതേപോലെ തന്നെയാണ് പൂച്ച കടിച്ചാൽ തന്നെ നമ്മള് ഇൻജെക്ഷൻ ടി ടി എടുക്കണമെന്നാണ് അതേപോലെ തന്നെയാണ് പട്ടിയും അപ്പോൾ പിന്നെ നമ്മള് കഴിവതും ഈ വളർത്തു മൃഗങ്ങളെ ഒഴിവാക്കുക വളർത്താണ്ടിരിക്കയാണ് ചെയ്യേണ്ടത്